ആ ഞങ്ങൾക്ക് അങ്ങനെ പോയ ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു ആ മല മലയുടെ പേര് കോയിരു മലാന്നായിരുന്നു ഞങ്ങൾ പോയ ദിവസം നല്ല തണുപ്പും മഞ്ഞൊക്കെയുണ്ടായിരുന്നു നല്ല ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനുമുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല ഒരു ആ കാലാവസ്ഥ ആയിരുന്നു നല്ല തണുപ്പും മഞ്ഞും അതിനനുസരിച്ച് നല്ല കാറ്റുമുണ്ടായിരുന്നു ഞങ്ങൾ കയറി പകുതി എത്തിയപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഉണ്ട് അതിൽ കയറി ഞങ്ങൾ പല സാഹസികാമായ ഒരിതുണ്ടായിരുന്നു എന്നുവെച്ചാൽ പാറമേലേക്കൂടെയായിരുന്നു വണ്ടി കയറി ഞങ്ങൾ ടോപ്പിൽ എത്തി അവിടെച്ചപ്പോഴാണ് നല്ല ഒരു ആ ചുറ്റുവട്ടം മൊത്തം നല്ലരീതിയിൽ കാണാനും പറ്റി ആ ഒരു നല്ലൊരു സ്ഥലമാണെങ്കിലും ആ മേ ടോപിലെത്തി ആ ഒരു ഏറ്റവും മുകളിലെത്തിയപ്പോൾ താഴത്തുള്ള എല്ലാം കാണാൻ പറ്റുവായിരുന്നു പിന്നെ നല്ല കാറ്റുള്ളത്കൊണ്ട് നല്ല രസം പിന്നെ അവിടെത്തന്നെ ഒരു തട്ടുകടയുണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു കുറച്ച് കാണാനൊക്കെ കണ്ട് അതിൽ കൂടെ ഞങ്ങൾ നടന്നു പിന്നെ അവിടെയൊക്കെ ചെന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ കുറച്ചു ട്രെക്കിങ് പോലെ അവിടെ ചുറ്റും ഇങ്ങനെ മലക്കാടുകളിലൊക്കെ കേറി നല്ല രസ്സമായിരുന്നു അതിന്റെ ഒപ്പം നല്ല കാലാവസ്ഥയും നല്ല മഴയും കാറ്റും പിന്നെ പാറയുടെ വരിപ്പിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പല പല സ്ഥലങ്ങളൊക്ക കണ്ട് നല്ല രസ്സമായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ അവിടെത്തന്നെ ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ പിന്നെ വൈകുന്നേരത്തെ ഫുഡും പിന്നെ ചായയൊക്കെ കുടിച്ചു അത്കഴിഞ്ഞിട്ട് അവിടെത്തന്നെ കുറെ ആൾക്കാരായിട്ട് സംസാരിച്ച് അവിടത്തെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു അവിടെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ സൂര്യാസ്തമനമൊക്കെ കണ്ട് പിന്നെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത് നല്ല ഒരു ഓർമയാണ് നമുക്ക് ജീവിതകാലം മൊത്തം അത് ഓർത്തിരിക്കാൻ നല്ല രസമാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഒരു വിഷയം ഒന്നുമുണ്ടാകാതെയാണ് കയറിയപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് അല്ലേൽ നല്ല വേറെ ഒരു കുഴപ്പം ഒന്നും പറ്റാതെയാണ് നല്ലരീതിയിൽ കയറി ഇറങ്ങി നല്ല ഒരു ഓർമയാണ് അത് ജീവിതകാലം മൊത്തം ഓർത്തുവെക്കാൻ പറ്റിയ നല്ല ഒരു ഓർമയാണ് പിന്നെ നല്ല രസമാണ് അതോർക്കുമ്പോൾ